കുടുംബത്തിലാർക്കെങ്കിലും വയ്യായ്കയായാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിക്കൊടുക്കുന്നത് കഞ്ഞിയാണ് കഞ്ഞി കഞ്ഞിയാണ് ഏറ്റവും ബെറ്ററ് അല്ലെങ്കിൽ പൊടിയരിക്കഞ്ഞി അങ്ങനത്തെ കുറേ വിഭവങ്ങൾ പപ്പടം ചെറുതായിട്ട് ചുട്ടെടുത്തതോ അല്ലാതിങ്ങനെ എണ്ണമയമുള്ള ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കിക്കൊടുക്കില്ല കഞ്ഞിയാണ് ഈ മെയിനായിട്ട് കൊടുക്കാറ് കഞ്ഞിയും എന്ത് ചമ്മന്തിയോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ചെറിയതായിട്ടുള്ള എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കും അല്ലാതെ വലുതായിട്ട് എണ്ണമയം ഒന്നും കൂട്ടിക്കില്ല കഞ്ഞിയെന്നെയാണ് ഏറ്റവും ബെറ്ററ് അതാണ് ശരീരത്തിനു ഏറ്റവും നല്ല സാധനം അല്ലെങ്കിൽ കുറച്ച് പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും ആക്കിയിട്ടു കൊടുക്കും ഫ്രൂട്ട്സ് അടിച്ചുകൊടുക്കും അങ്ങനെ അങ്ങനെയങ്ങനെയാണ് കൊടുക്കാറ്